നമ്മളുടെ പ്രദേശത്ത് അതായത് കുട്ടനാടൻ പ്രദേശത്ത് പ്രാദേശിക പാചകരീതികളെന്ന് പറയുന്നത് നല്ല കുട്ടനാടൻ താറാവ് കറിയുണ്ട് അതുപോലെ തന്നെ നല്ല മുളക് ഇട്ട മീൻകറിയുണ്ട് നല്ല കരിമീൻ ഇലയിൽ പൊള്ളിച്ചതുണ്ട് അതുപോലെ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ പാചക രീതികൾ നമ്മുടെ കുട്ടനാട്ടിലുണ്ട് ഈ വിഭവങ്ങളെല്ലാം ലഭിക്കുന്ന മികച്ച റെസ്റ്റോറൻറ്റുകൾ തന്നെ എല്ലാം തന്നെ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റുകളാണ് നമ്മുടെ ഈ ചുറ്റുമുള്ളത് അതിൽ പ്രധാനമായിട്ടും നല്ല ഷാപ്പുകളുണ്ട് ഗരുഡാഗിരിപോലുള്ള നല്ല ഷാപ്പുകളുണ്ട് ഇവിടെയെല്ലാം നല്ല നല്ല ഫുഡുകളാണ് കിട്ടുന്നത് താറാവ് നല്ല മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് നമുക്ക് താറാവ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനുശേഷം ഉപ്പും മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ടൊന്ന് വേവിച്ചിട്ട് നമ്മുടെ അരപ്പെല്ലാം ചേർത്ത് അതിലേക്കിട്ട് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചാറ്റിയെടുക്കുന്ന നല്ല താറാവ്കറി തൊട്ട് മസാലക്കൂട്ടുകളോടൊപ്പം കരിമീൻ വാഴയിലക്കകത്ത് പൊതിഞ്ഞ് വെച്ച് ഫ്രൈ ചെയ്യുന്നതുൾപ്പെടെ ഒരുപാട് നല്ല നല്ല ഫുഡുകളും നമ്മുടെ കുട്ടനാട്ടിൽ ലഭ്യമാണ് ഇതെല്ലാം നല്ല നല്ല ഷാപ്പുകളിലും അതുപോലെ തന്നെ പിന്നെ നല്ല ചെറിയ ചെറിയ ഹോട്ടലുകളിലുമെല്ലാം ഇവിടെ ലഭ്യമാണ്